എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ഏതാന്നു വെച്ചിട്ടുണ്ടെങ്കില് കൂളറാണ് കൂളർ അത്യാവശ്യം നല്ല കാറ്റാണ് അതായത് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാന്നുവെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പം എവിടെയിരിക്കുവാണെങ്കിലും അവടെ പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ കുത്തിയിട്ടുണ്ടെങ്കില് നമുക്കത് നല്ലോണം വർക്ക് ചെയ്യും നല്ല കാറ്റുമായിരിക്കും നമുക്കത് അഡ്ജസ്റ്റിയാനുള്ള കാര്യങ്ങളെല്ലാം സംഭവങ്ങളുമുണ്ട് അപ്പം ഈയിടെയാണ് മേടിച്ചത് രണ്ടുമൂന്ന് ദിവസമായി മേടിച്ചിട്ട് ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞതാണ് അപ്പം ഉപ്പ വന്നപ്പോൾ എനിക്ക് ടൗണിൽ കൊണ്ടുപോയിട്ട് മേടിച്ചു തന്നതാണ് അത്യാവശ്യം നല്ല നല്ല ഉപകാരമാണ് കാരണം ഭയങ്കര ചൂടല്ലേ മഴക്കാലമാണെങ്കിലും ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ നമുക്ക് അകത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് കാര്യമായിട്ടൊന്നുമില്ല നെഗറ്റീവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്കിത് എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ് നമ്മള് എവിടെ പോകുമ്പോളും നമ്മൾ എടുത്ത് കൊണ്ട് നടക്കണ്ടേ നമ്മളിപ്പോൾ മറ്റേ ഫാനൊക്കെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കില് സീലിംഗ് ഫാനൊക്കെ ആണെങ്കിൽ നമ്മള് സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്നുവെച്ചാൽ അവിടെ പ്ലഗുണ്ടെങ്കിൽ മാത്രമെ കുത്താൻ പറ്റുകയുള്ളു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ദൂരത്തേക്ക് അതിൻ്റെ കാറ്റ് ലഭിക്കും അത് ഇതിൻ്റെ ഒരു പോസിറ്റീവാണ് അതായത് നമ്മള് ഇപ്പോൾ റൂമിലിരിക്കുവാണെൽ നമുക്ക് ആ റൂമിൻ്റെ അറ്റത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വെച്ച് അവിടെവെച്ച് അവിടെവരെ നമുക്ക് കാറ്റ് ലഭിക്കും ഇതൊരു പോസിറ്റീവുമാണ്